കൃഷിയെക്കുറിച്ച് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് കൃഷി എന്നത് നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഘടകമാണ് പണ്ടത്തെ കാലത്ത് കൃഷിയ്ക്ക് വലിയ ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ കൃഷി താഴെ തട്ടിലാണുള്ളത് പണ്ട് കൃഷിക്കാരായിരുന്നു മൊത്തം ഇപ്പോഴാണെങ്കിൽ കൃഷിക്കാരെ കാണാനുമില്ല പലതരം കൃഷി ചെയ്യുന്നവരുണ്ടായിരുന്നു പാടത്ത് നെൽ കൃഷി നടത്തുന്നവരുണ്ട് പച്ചക്കറി കൃഷി നടത്തുന്നവരുണ്ട് അങ്ങനെ നിരവധി വിളകൾ കൃഷി ചെയ്ത് ഇറക്കുന്നവരുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൃഷിക്കാരെന്നു പറഞ്ഞാൽ ഒരു പുച്ഛമാണ് പണ്ട് കൃഷി ഒരു വലിയ തൊഴിലായിരുന്നു ഇപ്പോൾ ആ തൊഴിൽ ചെയ്യുന്നവരെ കാണ്മാൻ പോലും ഇല്ല കാരണം ഇപ്പോൾ ഒരുപാട് തൊഴിൽ അവസരങ്ങളും പലതരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ മുൻതൂക്കത്തിൽ നിൽക്കുന്നുണ്ട് എൻജിനീയറിങ് ഡോക്ടർ നേഴ്സ് അങ്ങനെ പലതരം ജോലികൾ ഇപ്പോൾ മുൻതൂക്കത്തിൽ നിൽക്കുന്നതു കൊണ്ടു തന്നെ എല്ലാവരും അങ്ങനെ പല പല ജോലി അവസരങ്ങൾ അന്വേഷിച്ചും അതു പഠിക്കാനും പോകും കൃഷി ചെയ്തുകൊണ്ടിരിക്കാൻ ആർക്കും താത്പര്യമില്ല എല്ലാവർക്കും എന്താ പുറത്തു പോയി ജോലി ചെയ്യുക ഈ നാടു വിട്ടു പുറത്തു പോയി ജോലി ചെയ്യുവാൻ ഒക്കെ ആണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷെ എന്താണ് മുൻതൂക്കത്തിൽ നിൽക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം കൃഷിയിലൂടെ ആണ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ കൃഷി ഇല്ലാത്തതു കൊണ്ടാണ് പുറത്തു നിന്ന് നമ്മൾ അരി വരുത്തി അല്ലെങ്കിൽ പച്ചക്കറി വരുത്തി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു നമുക്കു കഴിക്കേണ്ട അവസ്ഥ വരുന്നത് ഇവിടെ ഇപ്പോൾ അരി കൃഷി നടത്താതെ നെൽ കൃഷി നടത്തുകയാണെങ്കിൽ നമുക്ക് വേറൊരു സംസ്ഥാനത്തോട് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോട് അരിയ്ക്ക് വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യാണെങ്കിൽ നമ്മൾക്ക് വേറെ ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് കൃഷിയെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല നമ്മൾ എവിടെ ആയാലും കൃഷി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായത് ഇപ്പോൾ നമ്മൾ പുറത്തു ജോലി ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു രണ്ടു പച്ചക്കറിയുടെ ഒരു തണ്ട് നടുകയോ അങ്ങനെ ഒരു കൃഷി നടത്തുകയോ ചെയ്യണം നമ്മൾ ഒരിക്കലും പ്രകൃതിയോട് ഇണങ്ങാതെ ജീവിക്കരുത് കൃഷിക്കാർ എല്ലാവരും തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ